ഇപ്പോൾ നമ്മൾ പാത്രങ്ങളൊക്കെ കഴുകാൻ വേണ്ടിയിട്ട് പല രീതിയിലുള്ള പ്രക്രിയകളും കാര്യങ്ങളുമൊക്കെ ചെയ്യുന്നുണ്ട് ഇപ്പോൾ പ്രക്രിയയെന്നൊക്കെ പറഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ കൂടുതലായിട്ടും സോപ്പ് വച്ചിട്ടാണ് പാത്രങ്ങളൊക്കെ കൂടുതലായിട്ടും കഴുകുന്നത് ഇപ്പോൾ പഴയ ആൾക്കാർ എന്നൊക്കെ പറഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ചാരം ഉപയോഗിച്ചാണ് ഈ പാത്രമൊക്കെ കഴുകുക അപ്പോൾ അതെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ചാരം എന്ന് പ റഞ്ഞ് കഴിഞ്ഞാൽ നല്ല രീതിയിൽ നമ്മൾ ചാരവും ഇപ്പോൾ മറ്റേ നമ്മുടെ ചകിരിയും വച്ചിട്ട് ഉരയ്ക്കുമ്പോൾ എനിക്ക് നല്ല രീതിയില് ഇപ്പോൾ ചളിയൊക്കെ വേഗം പോകാനും എന്തെങ്കിലും കറുപ്പ് പാടുകളൊക്കെ ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ട് അതാണ് കുറച്ചും കൂടി നല്ലതായിട്ട് എനിക്ക് തോന്നുന്നത് ഇപ്പോൾ നമ്മുടെ വിളക്കൊക്കെ നല്ല രീതിയിൽ വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചാരവും ഈ ചകിരിയും വച്ചിട്ടാണ് കൂടുതലായിട്ട് നല്ല രീതിയിൽ ഉരയ്ക്കുക അപ്പോൾ നല്ല രീതിയിലുള്ളൊരു കളറും കാര്യങ്ങളൊക്കെ അതായിരിക്കും ഈ വിളക്കിനൊക്കെ വരിക അപ്പോൾ അതാണ് കുറച്ചും കൂടി പഴയ ആൾക്കാരൊക്കെ ചെയ്യുന്നത് പണ്ടൊന്നും സോപ്പ് ഒന്നും അങ്ങനെ ഉണ്ടായിരുന്നില്ല ഇപ്പോൾ സോപ്പും കാര്യങ്ങളൊക്കെ വന്നതു കൊണ്ട് അതും ചെയ്യുന്നുണ്ട് ഇപ്പോൾ പാത്രങ്ങളൊക്കെ നല്ല രീതിയിൽ വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് പല രീതിയിലുള്ള കെമിക്കൽ സാധനങ്ങളൊക്കെ നമുക്ക് കടയിലൊക്കെ കിട്ടും